ഞാന് അവതരിപ്പിക്കാന് പോകുന്ന പാട്ട് സന്ദര്ഭം അനുസരിച്ചാണ് ഞാന് തെരഞ്ഞെടുക്കാറ് പാട്ടുകള് തന്നെ പലവിധം ഉണ്ട് സിനിമ പാട്ടുകളുണ്ട് ഭക്തി ഗാനങ്ങളുണ്ട് ക്ലാസ്സിക്കല് മ്യൂസിക്കുണ്ട് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പാട്ടുകള് നമ്മുക്കിപ്പോൾ അറിയാം ഇപ്പോൾ തന്നെ സിനിമാ ഗാനങ്ങള് നോക്കിയാൽ അതിൽ തന്നെ മെലഡിയുണ്ട് സെമി ക്ലാസ്സിക്കലുണ്ട് ഫാസ്റ്റ് നമ്പറുണ്ട് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പാട്ടുകളും നമുക്ക് കാണാം ഒരു ഗാനമേള കേള്ക്കാന് പലവിധത്തിലുള്ള ആള്ക്കാരാണ് വരുന്നത് കുഞ്ഞു കുട്ടികള് ടീനേജെര്സ് യൂത്ത് യൂത്ത് അതുപോലെ തന്നെ മധ്യവയസ്ക്കര് മുതിര്ന്നവര് അങ്ങനെയൊക്കെയുള്ള എല്ലാവരും ആണ് ഒരു ഗാനമേള കേള്ക്കാന് വരുന്നത് അതുകൊണ്ട് തന്നെ അതില് ഓരോ ആള്ക്കാര്ക്കും ഓരോ തരത്തിലുള്ള പാട്ടുകളാണ് ഇഷ്ട്ടം മുതിര്ന്നവര്ക്ക് ഇഷ്ടമുള്ള പാട്ടുകളായിരിക്കില്ല യങ്ങ്സ്റ്റെര്സിന് ഇഷ്ട്ടപ്പെടുക അതായത് ഇപ്പോൾ മുതിര്ന്നവര്ക്ക് കൂടുതൽ ഇഷ്ടം എന്നു പറയുന്നത് പഴയ പാട്ടുകളോടാണ് പ്രത്യേകിച്ച് പഴയ മെലഡി ഗാനങ്ങളോട് പക്ഷെ യങ്ങ്സ്റ്റെര്സിനാവട്ടെ കൂടുതലും അവര്ക്ക് അടിച്ചുപൊളി പാട്ടുകളോടാണ് താല്പര്യം അവര്ക്ക് പഴയ പാട്ടുകളോട് അത്ര വലിയ താല്പര്യം ഇല്ല ഓരോരുത്തർ ഓരോരുത്തരുടെ ചോയ്സും ഇഷ്ടവും കണ്ടറിഞ്ഞു വേണം നമ്മള് ഗാനമേളയ്ക്ക് ഒരു പാട്ട് അവതരിപ്പിക്കാന് അല്ലെങ്കില് ഒരു വേദിയില് നമ്മളൊരു പാട്ട് അവതരിപ്പിക്കാന് എല്ലാ കൂട്ടരെയും സംതൃപ്തിപെടുത്തുന്ന പാട്ടുകളാണ് എപ്പോഴും ഒരു ഗാനമേളയുടെ വിജയം എന്ന് ഞാന് പറയുന്നത് അത് പോലെ തന്നെ ഒരു മുഖ്യമായ ഘടകമാണ് ഏത് സിറ്റുവേഷണനിലാണ് ഒരു പാട്ട് അവതരിപ്പിക്കേണ്ടത് എന്നാണ് അതായത് നമുക്ക് ഒരുപാട് വേദികളില് നമുക്ക് ഒരു പാട്ട് അവതരിപ്പിക്കാം അതായത് ഇപ്പം ഒരു ഉത്സവപ്പറമ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ എതെങ്കിലുമൊരു കല്യാണ വീടായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബ് ആയിക്കോട്ടെ അല്ലെങ്കില് ഏതെങ്കിലും പാര്ട്ടി ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് വേദിയില് നമുക്ക് പാട്ടുകള് അവതരിപ്പിക്കാന് പറ്റും ഒരു കല്യാണ വീട്ടില് പോയിട്ട് നമുക്കൊരു ഭക്തിഗാനം പാടാന് കഴിയില്ലല്ലോ അവര്ക്ക് വേണ്ടത് ഒരു കല്യാണ വീട്ടില് മെയിന് ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞാല് കുറച്ച് ഫീല് ഗുഡ് ആയിട്ടുള്ള എല്ലാവരും കേള്ക്കാന് ഇഷ്ട്ടപ്പെടുന്ന പാട്ടുകളായിരിക്കും അതേ സമയം നമ്മളൊരു പാര്ട്ടിക്ക് പോയാല് അവിടെ എല്ലാവര്ക്കും ഡാന്സ് കളിക്കാന് പറ്റിയ പാട്ടുകളായിരിക്കും അതായത് കുറച്ച് അടിപൊളി പാട്ടുകള് അതേ സമയം നമ്മളൊരു ആരാധനാലയത്തില് പോയാലോ അവിടെ കൂടുതലും ഭക്തിഗാനങ്ങളാണ് കൂടുതല് പേരും ആവശ്യപ്പെടുന്നത് ചിലപ്പോള് സെമി ക്ലാസ്സിക്കല് അല്ലെങ്കില് ക്ലാസിക്കല് മ്യൂസിക് അങ്ങനെ അത്കൊണ്ട് തന്നെ നമ്മള് ഏത് സന്ദര്ഭത്തിനാണ് നിൽക്കുന്നത് ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അതനുസരിച്ചായിരിക്കും ഞാന് എപ്പോഴും ഒരു പാട്ട് തെരഞ്ഞെടുക്കാറുള്ളത്